ബാങ്കിംഗും ഇൻഷുറൻസും ഒക്കെ നമ്മൾ നമ്മുടെ വ്യക്തിഗത സമ്പ് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന രീതിയെ എങ്ങനെ മാറ്റുന്നു എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാര് സാ അവര് അവർ സമ്പാദിക്കുന്നുണ്ട് ആദ്യമൊക്കെ വരവും ചിലവും അങ്ങനെ ഉണ്ടാവാറില്ല എന്നാൽ ഇന്ന് ഒരുപാട് ആൾക്കാര് അവരുടെ ഒരു ഒരു മാസത്തെ ശമ്പളം കിട്ടിയാൽ അത് ഒരു അതിൻ്റെ ഒരു പെർസെന്റജ് ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ അവർക്ക് അതൊരു സമ്പാദ്യമായിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിലനിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇപ്പോൾ ബാങ്കിംഗ് മേഖലയിൽ തന്നെ ഒരുപാട് മാറികഴിഞ്ഞു ഇപ്പം എടിഎം ഗൂഗിൾപേ ഇതൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇപ്പം ഒരുപാട് ആൾക്കാർ ക്യാഷ് ബാങ്കിംഗ് ബാങ്കിലൂ ബാങ്കിംഗിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതും സേവ് ചെയ്യുന്നതുമൊക്കെ അപ്പം ഇന്ന് ഒരു ചെറിയ കുട്ടിക്ക് പോലും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തത് ആയിട്ടില്ല ഇപ്പം സ്കൂളുകളിൽ ആയിക്കോട്ടെ സ്കോളർഷിപ്പ് നൽകുന്നതും ബാങ്ക് ബാങ്കുകളിലേക്കാണ് അതുകൊണ്ടുതന്നെ ബാങ്കിംഗ് മേഖല ആൾക്കാർക്കിടയിൽ നല്ല രീതിയിൽ തന്നെ ക്യാഷ് നിക്ഷേപം നൽകുന്നുണ്ട് ഇപ്പം ഇൻഷുറൻസ് ആയിക്കോട്ടെ ഇപ്പം നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു അസുഖവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ആക്സിഡന്റോ വന്ന വന്ന ഒരു വന്നു കിടക്കുന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കൊണ്ട് തന്നെ അപ്പം പെട്ടെന്ന് നമ്മുടെ കൈയില് ക്യാഷ് ഒന്നുമില്ലെങ്കിൽ ഈ ഇൻഷുറൻസിൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കൂടുതലായിട്ടും നമുക്ക് ഒരു ഭാരം വരുന്നില്ല നമ്മുക്ക് ഇൻഷുറൻസ് കൊണ്ട് തന്നെ അതിലെ ഒരു പകുതി പൈസവരെ നമുക്ക് അതിലൂടെ ഈടാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു മുന്നേറ്റം തന്നെ ബാങ്കിംഗ് മേഖല ഇപ്പം ജനങ്ങൾക്കിടയിൽ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്